ഇപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്നു പറഞ്ഞാൽ കൂടുതലായിട്ടും മലയാളം മലയാളം സെക്കൻഡ് അങ്ങനെ രണ്ട് ലാഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് അതിൽ മലയാളംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയാണ് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള അറിവ് കാര്യങ്ങളും പിന്നെ കുറച്ച് അച്ചടി ഭാഷ എന്നൊക്കെ പറഞ്ഞ് അടിക്കാണെങ്കിൽ മലയാളം തന്നെ പഠിക്കണം നമുക്കിപ്പോൾ എവിടെയെങ്കിലും കേരളത്തിലെവിടെ വേണമെങ്കിലും പ്രയോഗിക്കാനുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് അപ്പം മലയാളമാണ് കൂടുതൽ ഏറ്റോം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതും പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് നമുക്ക് മെയിൻ ആയിട്ടിപ്പം മലയാളത്തെപ്പോലെ തന്നെ വേണ്ടത് കാരണെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കേരളം വിട്ടു പോയാൽത്തന്നെ നമുക്ക് ഇംഗ്ലീഷ് വേണം ഇപ്പം ഒരു ജോലി കിട്ടണമെങ്കിൽത്തന്നെ ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ സാമൂഹ്യ പാഠം അങ്ങനെ ഉണ്ട് പിന്നെ സയൻസ് സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മളെങ്ങനാണ് ഉണ്ടായത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു അതായത് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വന്ന ഓരോ കാലഘട്ടങ്ങൾ അന്നത്തെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടുള്ള ഇത് പിന്നെ മാക്സ് അങ്ങനെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്